ഓക്കെ എന്തായിരുന്നു ഓക്കെ എത്ര രൂപയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ത് വെച്ചിട്ട് എങ്ങനെയാണ് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ എത്ര സെൻറ്റിൻ്റെ ഒരു ഏക്കർ ഓക്കെ ആ എന്ത് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് ഒരേ ഓക്കെ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ എഴുത്തുവരാൻ പറ്റുന്ന ദിവസമാണെങ്കിൽ ബാങ്കിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രൊസീജിയർ ചെയ്യാമായിരുന്നു വരുമ്പം നികുതി ചീട്ട് ആധാർ പിന്നെ സ്ഥലത്തിൻ്റെ കോ ഇതില്ലേ ആധാരം ഇതൊക്കെ ഒന്ന് കൊണ്ട് വരുവായിരുന്നെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു എത്ര രൂപയാണ് പ്രതീക്ഷിക്കുന്നത് അത് നിങ്ങൾ എത്ര രൂപയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ സ്ഥലം കണ്ടിട്ടാണ് സ്ഥലം വല്ല ആദായം ഒക്കെ ഉള്ള സ്ഥലം നോക്കിയിട്ട് ആ ആണ് നമ്മൾ പിന്നെ അമൗണ്ട് അനുവദിക്കുന്നത് അപ്പം പലിശയും കാര്യങ്ങളൊക്കെ മൂന്ന് ശതമാ നാല് ശതമാനം ഉണ്ട് ഒമ്പത് ഉണ്ട് പതിനൊന്ന് ശതമാനം ഉണ്ട് പലിശ അപ്പം അടയ്ക്കുന്നത് അപ്പം നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ച് തീരുമാനിക്കാം എന്തായാലും നിങ്ങൾ ഒരു ദിവസം ബാങ്കിലോട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് അതിനേക്കുറിച്ച് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ഇതാക്കാമായിരുന്നു അല്ല എത്ര എത്ര പെട്ടെന്ന് ആണ് ലോൺ വേണ്ടത് എങ്ങനെയാണ് എത്ര മാസത്തിനുള്ളിൽ കുറേ നാൾ എടുക്കുമോ അതോ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് രോൺ ലോൺ റെഡി ആക്കണോ എന്നൊക്കെ ഒന്ന് എങ്ങനെയാണത് ഓക്കെ അപ്പം നിങ്ങൾ എന്തായാലും നികുതി ചീട്ടും ആ ആധാരവും പിന്നെ ഫോട്ടോ എടുത്തോ അത് പിന്നെ ആധാർ കാർഡിൻ്റ കോപ്പി അങ്ങനെ അതും എടുത്തിട്ടൊന്ന് ബാങ്കിലോട്ട് പോരെ